ഹലോ ക്യാബല്ലേ ഞാന് ഒരു യാത്ര പോവാൻ വേണ്ടീട്ട് ഫാമിലി ആയിട്ടൊരു യാത്ര പോകാൻ വേണ്ടീട്ട് ഒരു വണ്ടി വേണമായിരുന്നു അപ്പം അതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചതാണെ നമ്മൾ പോവാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ അടവിയിൽ ഇക്കോ ടൂറിസത്തിലാണ് അപ്പം നമ്മുടെ വീട്ടീന്ന് മൊത്തം നാല് പേരാണ് വരുന്നത് ഞാൻ രാവിലെ വെളുപ്പിനെ പോകാനാണ് ഒരു മൂന്ന് മണിക്ക് അപ്പം അതിന് മുന്നേ നിങ്ങൾക്ക് വരാൻ പറ്റുമോ ഈ നാല് പേര് പോകുന്നതിന് എത്രയാകും ചാർജ് വണ്ടി എങ്ങനെയാണ് നല്ല വൃത്തിയുള്ള വണ്ടിയായിരിക്കുവോ ആ ചിലപ്പം വേറെ രണ്ട് കസിൻസ് കൂടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉറപ്പൊന്നും ആയിട്ടില്ല അതുകൊണ്ട് ഉറപ്പിച്ച് പറയുന്നില്ല എങ്കിലും ആറ് പേർക്ക് ആവാം എങ്ങനെയാണ് വേറെ വണ്ടിക്ക് എങ്ങനെ റേറ്റാവും ആറ് പേര് ഇരുന്ന് പോകാൻ പറ്റുന്ന വണ്ടിക്ക് ഒരു കുറച്ച് കൂടെ വലിയ വണ്ടി വേണ്ടേ അപ്പം അങ്ങനെ ആകുമ്പോൾ റേറ്റ് എങ്ങനെ ആകും ആ നമുക്ക് വെളുപ്പിനെ പോണം ആ ഒന്നും കൂടെ വിളിച്ചോർപ്പിച്ച് പറയാം ആ നാല് പേരാണോ ആറ് പേരാണോ എന്ന് ആ നമുക്ക് പോകാൻ വേണ്ടീട്ടായിരുന്നു അപ്പം വരുവോ അതെ മറ്റന്നാൾ പോകാനാണ് മറ്റന്നാൾ പോകാൻ വേണ്ടീട്ട് രാവിലെ വെളുപ്പിനെ ഒരു രണ്ടേമുക്കാലാകുമ്പോഴ്ത്തേക്ക് എത്താൻ പറയുവോ ശരിയെന്നാൽ